വീഡിയോ ഗെയിമുകൾ വീഡിയോ ഗെയിമുകൾ ഏറ്റവും ഇഷട്ടപ്പെട്ട ഗെയിമുകളിൽ ഒന്ന് തന്നെയാണ് വീഡിയോ ഗെയിമുകൾ പലതരം ഗെയിമുകൾ ഇന്ന് ലോകത്തുണ്ട് പക്ഷേ ഏറ്റവും ലോകത്ത് ഏറ്റവും പേര് കളിക്കുന്ന ഒരു ഗെയിമ് തന്നെ വേണമെങ്കിൽ പറയാം വീഡിയോ ഗെയിമുകൾ നമ്മൾ ചെറുപ്പ കാലങ്ങളിൽ നമുക്ക് മറ്റുള്ളവർ കളിക്കുന്നത് കാണുകയേ ആയിരുന്നുള്ളൂ വീഡിയോ ഗെയിമുകൾ എന്തെന്ന് അറിയ വീഡിയോ ഗെയിം ആണെന്ന് പോലും അറിയില്ല പക്ഷേ ഇവർ കളിക്കുന്നത് കാണുക മാത്രം ആയിരുന്നുള്ളൂ പക്ഷേ അത് കളിക്കണം എന്നൊരു ആഗ്രഹവും ഇത് ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹവും വളരെയുണ്ടാവും ഈ വീഡിയോ ഗെയിമുകൾ കാണുമ്പോൾ വീഡിയോ ഗെയിമുകൾ ഇപ്പോൾ എല്ലാ വീടുകളിലും സുലഭമായ ഒന്നു തന്നെയാണ് വീഡിയോ ഗെയിമുകൾ വീഡിയോ ഗെയിമുകൾ കളിക്കാനും കാണാനും സുഹൃത്തുക്കളുമായി കളിക്കാനും എല്ലാം വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് തന്നിരിക്കുന്നത് പക്ഷേ ഇതിന് ആഡിക്ടായാൽ അത് അവിടെ നെഗറ്റീവ് പോയിൻറ്റ്സ് വരുന്നു വീഡിയോ ഗെയിമുകൾ ഓവർ കളിച്ച് അതിനെ നമുക്ക് അതിന്റെ ഒരു അഡിക്ഷനിൽ എത്തിയാൽ അത് വളരെ വളരെ നെഗറ്റീവ് തന്നെയാണ് ഒരുപാട് പേര് ഇതിന് അഡിക്റ്റീവായ അഡിക്ടായ ഒരുപാട് പേരെ നമുക്ക് അറിയാം അതുപോലെത്തന്നെ ഈ വീഡിയോ ഗെയിമുകൾ വെച്ച് ഈ ഈ ലൈവിട്ട് സ്ട്രീം ചെയ്ത് ഈ യുട്യുബുകളിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ ലഭിച്ച് അങ്ങനെയും എല്ലാ ഗെയിമിംഗ് മേഖലയിൽ വളരെ ഉന്നതയിൽ എത്തിയവരെയും നമുക്ക് അറിയാം വീഡിയോ ഗെയിമുകൾ കളിച്ച് മാത്രം തന്നെ വീഡിയോ ഗെയിമുകൾ ഒരുപാടുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ആ ജിടിഎ സാൻ ആൻഡ്രിയാസ് പിന്നേ ഫിഫ ഈ ഫുട്ബോള് എന്ന് ഒരുപാട് ഒരുപാട് വീഡിയോ ഗെയിമുകൾ ഉണ്ട് ഇതെല്ലാവരും നമുക്ക് അടുത്തിരുന്ന് വേണെങ്കിൽ കണക്റ്റ് ചെയ്ത് കളിക്കാം നമുക്ക് ഏത് ലോങ്ങിൽ ഇരുന്ന് വേണമെങ്കിലും വീഡിയോ ഗെയിമുകൾ കണക്റ്റ് ചെയ്ത് ഇരിക്കാം ഈ ഗെയിമുകൾ ഗെയിമെന്ന് വെച്ചാൽ പല രീതിയിലുണ്ട് പക്ഷെ അതിൽ ഒരു ഒരു നമുക്ക് ഫേവറേറ്റായ ഒരു ഭാഗം തന്നെയാണ് വീഡിയോ ഗെയിമുകൾ ആരോട് ചോദിച്ചാലും ഒരാൾ പോലും ഇഷ്ടമില്ല എന്ന് വീഡിയോ ഗെയിം വീഡിയോ ഗെയിം ഇഷ്ടമില്ല എന്ന് പറയില്ല നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടമായത് കൊണ്ട്തന്നെ എല്ലാ ഗെയിമുകളും നമുക്ക് അവൈലബിളാണ് അത്കൊണ്ട് നമ്മളൊക്കെ ഒരുപാട് ഗെയിമുകൾ വീഡിയോ ഗെയിമുകൾ കളിച്ച വ്യക്തികളാണ് വീഡിയോ ഗെയിമുകൾ കളിക്കുകയും അത് വഴി ഈ ഒരുപാട് പൈസ ഏൺ ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ട് തന്നെ വളരെ സന്തോഷമായ നിമിഷങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഹാപ്പിനെസ്സ് ഹാപ്പിനെസ്സ് ഇതിന്ന് ലഭിച്ചിട്ടുണ്ട് വളരെ ദുഖവും ലഭിച്ചിട്ടുണ്ട് ഡിപ്രഷൻ ആവുകയും ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാം പാടെ ഒന്നു തന്നെയാണ് ഗെയിം ഗെയിമെന്നാല് തന്നെ എല്ലാം അടങ്ങിയ ഒന്നാണ് പക്ഷേ ഇതിനോടൊപ്പം വീഡിയോ ഗെയിമും കൂടിയാകുമ്പോൾ അത് കുറച്ച് കൂടി ഇൻട്രസ്റ്റിങായി മാറും വീഡിയോ ഗെയിമുകൾ ലഭിക്കുന്ന ലഭിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ അതിനുവേണ്ടി വീടുകളിൽ അടിയുണ്ടാക്കുന്നവർ വരെ ഇന്നത്തെ കാലത്ത് ഉണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല സ്വന്തമായി പണിയെടുക്കുക കാശുണ്ടാക്കുക കാശ് വെച്ച് വീഡിയോ ഗെയിമുകൾ കളിക്കുക ഹാപ്പിനെസ്സാണ് മുഖ്യം അത് എന്ത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ലഭിക്കുക തന്നെ വേണം